ഓൺലൈൻ വിദ്യാഭ്യാസം കുട്ടികൾക്ക് മികച്ച അവസരമാണ് ഒരുക്കിയത് ഇപ്പോൾ ഇൻറ്റർനെറ്റിൻ്റെ കാലമായതിനാൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ എല്ലാവർക്കും ഇതിൽ പ്രാവിണ്യം നേടാനായത് ഭാവിയിൽ വലിയതോതിൽ ഉപകരിക്കും കുഞ്ഞു നാളിൽ തന്നേ ഓൺലൈൻ വിദ്യാഭ്യാസം നേടാനായ സാഹചര്യം ഭാവിയിൽ കുട്ടികൾക്ക് ഇക്കാര്യത്തിന് ഉപകരിക്കും കോവിഡ് ഒരു അർത്ഥത്തിൽ ഏറ്റവും അധികം ബാധിച്ചത് കുട്ടികളെയാണ് കുട്ടികളുടെ സ്കൂൾ യാത്ര സ്കൂളിലെ പഠനമൊക്കെ ഓരോ കുട്ടിക്കും പുതിയ അനുഭവങ്ങൾ പകരുന്നതായിരുന്നു കുറേ മാസങ്ങളായി അത് അസാധ്യമായി എന്നാൽ പഠനം പഠനം മുടങ്ങാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും പുലർത്തി ഓൺലൈൻ വിദ്യാഭ്യാസവും നല്ല നിലക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു ഓൺലൈനിൽ മാത്രം വിദ്യാഭ്യാസം നടത്താൻ കുട്ടികളാരും ആഗ്രഹിക്കുന്നില്ല കോവിഡ് എന്ന മഹാമാരി നല്ല തോതിൽ നിയന്ത്രിക്കപ്പെട്ടാൽ പെ ട്ടതിന് ശേഷം കുട്ടികൾ സ്കൂളിൽ പോകുവാനും തുടങ്ങി കേരളത്തിൽ നല്ല നിലക്ക് മഹാമാരിയെ നിയന്ത്രിക്കാനായെങ്കിലും പല വിധ കാരണങ്ങളാൽ കോവിഡ് വ്യാപിക്കുന്ന നില വന്നു അത് കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓൺലൈൻ സ്കൂൾ വിദ്യാഭ്യാസം ഏറിവന്നത് ഏതു കാര്യവും തെറ്റായി ഉപയോഗിച്ചാൽ അതിൻ്റെ ദൂഷ്യം വലുതാണ് അതുകൊണ്ട് തന്നെ ഇൻറ്റർനെറ്റിൻ്റെ ദുരുപയോഗ കാര്യത്തിൽ നാം ജാഗ്രത പാലിക്കണം കുഞ്ഞുങ്ങളും ഒപ്പം മാതാ പിതാക്കളും ഇക്കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ കുട്ടികളുടെ തന്നെ ഭാവി അപകടമാക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു തനിക്കും സമൂഹത്തിനും ദൂക്ഷ്യങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും കടക്കില്ലെന്ന് ഉറപ്പിക്കണം തുറന്ന സ്ഥലങ്ങളിലോ മുറികളിലോ വച്ച് ഇൻറ്റർനെറ്റ് ഉപയോഗിക്കാൻ വിദ്യാർത്ഥികൾക്കാവണം അത്തരമൊരു ശീലം വളർത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയുള്ള വിദ്യാഭ്യാസം നല്ലതായിരിക്കും ഇൻറ്റർനെറ്റ് വഴി പല രീതിയിലുള്ള അപകടങ്ങളിൽ കുഞ്ഞുങ്ങൾ പ്പെട്ടതിൻ്റെ വാർത്തകൾ പല വട്ടത്തിലും നാം കേട്ടിട്ടുണ്ട് അതൊഴിവാക്കാൻ ഇത്തരം ശീലങ്ങൾ സഹായിക്കും കുട്ടികളുടെ സംരക്ഷണത്തിന് അതീവ പ്രാധാന്യമാണ് നമ്മുടെ സമൂഹം നൽകുന്നത് മറ്റേതൊരു സംസ്ഥനത്തിനും മുന്നിൽ നിൽക്കുന്ന പുരോഗമന സ്വഭാവം ആർജിക്കാൻ നമ്മുടെ സമൂഹത്തിനായിട്ടുണ്ട് രാജ്യത്തിൻ്റെ ചിത്രമെടുത്താൽ ഒട്ടേറെ ദുരിതമനുഭവിക്കുന്ന കുട്ടികളെ കാണാനാകും കുഞ്ഞുന്നാളിൽ അനുഭവിക്കേണ്ട സ്നേഹം വാൽസല്യം സംരക്ഷണം തുടങ്ങിയവ നഷ്ട്ടപ്പെട്ടു പോയ കുട്ടികൾ എണ്ണത്തിൽ കൂടുതലാണ് രാജ്യത്ത് വിദ്യാഭ്യാസത്തിന് അറിയാതെ പല അധിക്രമങ്ങൾക്കിരയാകുന്നവരും വലിയ തോതിലുണ്ട് ഈ ദുരാവസ്ഥ പൊതുവിൽ കേരളത്തിലില്ല ഒറ്റപ്പെട്ട തോതിൽ സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ നമ്മുടെ സമൂഹം പ്രതികരിക്കും ഓരോ കുട്ടിക്കും തൻ്റെ ബാല്യം ശരിയായി ഉപയോഗിച്ച ഉപയോഗിച്ച് വളർന്നു വരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് കേരളത്തിൽ ആകാവുന്നതെല്ലാം ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലും മയക്കു മരുന്നിനാകും നമ്മുടെ സമൂഹത്തിലും മയക്കുമരുന്ന് വ്യാപിക്കാനുള്ള ശ്രമങ്ങളുണ്ട് സമൂഹത്തിൻ്റെ പ്രതികരണ ശേഷി നഷ്ട്ടപ്പെടുത്താൻ മയക്കുമരുന്നിനാകും വകുപ്പുകളെതിരെ എതിരെ സുതുത്യർഹ പങ്ക് വഹിക്കുന്നുണ്ട് അതോടൊപ്പം സ്കൂളിലെ അധ്യാപകർ അധ്യാപക രക്ഷാകതൃ സമിതി കുട്ടികൾ സ്റ്റുഡൻ്റ് പോലീസ് എൻ എസ്സ എസ് തുടങ്ങിയ വിവിധ തലങ്ങളിലെ ഇടപെടൽ ഉണ്ടാകണം കുട്ടികളെ മയക്കുമരുന്ന് വാഹകരാക്കാനുള്ള നീക്കം റാക്കറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ട് സ്കൂളും പരിസരവും പൂർണമായും ഇതിൽ നിന്നും മോചനം നേടുന്ന സാഹചര്യമൊരുക്കണം നമ്മുടെ സമൂഹം പുരോഗമന സ്വഭാവം ഉള്ളതാണെങ്കിലും കുട്ടികൾ അവിചാരിതമായ പ്രശ്നങ്ങളിൽ പെട്ട് വലിയ മാനസിക തകർച്ച നേരിടുന്ന അവസ്ഥയുമുണ്ട് ഇതിനും ഇത് നാം ഗൗരവമായി കാണണം ഇക്കാര്യത്തിൽ വീടിൻ്റെ അന്തരീക്ഷവും രക്ഷിതാക്കളുടെ ശ്രദ്ധയും സ്കൂളുകളിൽ അധ്യാപകരുടെ പ്രത്യേക ശ്രദ്ധയും വേണം ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യത്തോടെയും കുട്ടികൾക്ക് വളരാനാകണം ഇതിനാണ് സ്കൂളുകളിൽ കുട്ടികൾക്ക് മെൻറ്റർ ടീച്ചറും കൗൺസിലിംഗ് സംവിധാനവും ഒക്കെ ഉള്ളത് എന്നാൽ എപ്പോളും നല്ലത് കൂട്ടുകാരോടൊത്തും അധ്യാപകരോടൊത്തും ഇരുന്നുകൊണ്ട് പഠിക്കുവാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഓൺലൈനായിട്ട് ക്ലാസുകൾ പഠിക്കുന്നതിന് ഉപരി കുട്ടികൾക്ക് തങ്ങളുടെ മാനസികമായ വികാസത്തിനും അതുപോലെ തന്നെ നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കുവാനും നല്ല സുഹൃത്തുക്കളെ നേടുവാനും ഒക്കെയുള്ള അവസരം സ്കൂളുകളിൽ ചെല്ലുമ്പോൾ തന്നെയാണ് കിട്ടുക അധ്യാപകർ തങ്ങടെ കുട്ടികൾക്ക് നേരിട്ട് അറിവ് പകർന്നു കൊടുക്കുന്നത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്